ഇനി വരുന്ന സമയത്തിൽ ഒരു മനുഷ്യൻ്റെ വേണ്ടപ്പെട്ട എല്ലാ സംഭവങ്ങളും നിരീക്ഷിക്കാനും കഴിയുന്ന യന്ത്രങ്ങളും ആവശ്യനുസരണം ഓൺലൈൻ വഴി പൈസ ട്രാൻസാക്ഷൻ ചെയ്യാനുള്ള ബ്ലോക്ക് ചെയിൻ ടെക്നോളോജികളും വരുന്നതായിരിക്കും ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളോജികൾ ഒരു ഗവൺമെൻ്റൊ അഥവാ ഒരു സ്പെസിഫിക് ആയ ഒരു കോർപ്പറേഷനോ നിയന്ത്രിക്കുന്നതല്ലാത്തതിനാൽ മനുഷ്യർക്കിത് കൂടുതൽ ഇഷ്ടപ്പെടും കാരണം ഈ പൈസക്ക് കൺട്രോളില്ല ആ കൺട്രോളില്ലാത്തതിനാൽ ഇത് ആൾക്കാരുടെ ഉപയോഗാനുസരണമാണ് ഇതിൻ്റെ മൂല്യവും കാര്യങ്ങളും നോക്കുന്നത് ഒരു മനുഷ്യൻ്റെ ഹാർട്ട് ബീറ്റ് മുതൽ എല്ലാം നിരീക്ഷിക്കാനുള്ള യന്ത്രങ്ങളും വരും പറക്കുന്ന വണ്ടികൾ അങ്ങനെ എല്ലാം വരുന്നതാണ് ഭാവിയിൽ